എന്റെ സഹോദരന് അടിസ്ഥാന വിദ്യാഭ്യാസത്തിനു ശേഷം തൊഴില് നൈപുണ്യപരമായി എന്തെങ്കിലും കോഴ്സുകള് ചേരാനാണ് ഞാന് ആഗ്രഹിക്കുന്നത് കാരണം ഇന്നത്തെ സമൂഹത്തില് അത്തരത്തിലുള്ള തൊഴിലുകള്ക്കാണ് അവസരങ്ങള് ഏറെയും അതിനാല് തന്നെ അങ്ങനെ ഒരു തൊഴില്പരമായ കോഴ്സ് അവന് തിരഞ്ഞെടുക്കുന്നതിനോടാണ് ഞാന് യോജിക്കുന്നത് കൂടുതല് വിദ്യാഭ്യാസ സര്ട്ടിഫിക്കറ്റുകള് വാങ്ങി കൂട്ടാതെ നമുക്ക് പ്രയോജനപരമായ തരത്തിലുള്ള കോഴ്സുകളാണ് ഇന്നത്തെ സമൂഹത്തിനാവശ്യം ഇന്ന് ആര്ട്സ്സും സയന്സും ഗ്രൂപ്പുകളിലുള്ള ഗ്രാജുവേഷന് കഴിഞ്ഞവര് മിക്കവരും ജോലിയില്ലാതെ നമ്മുടെ സമൂഹത്തില് സര്ട്ടിഫിക്കറ്റുകള് കൊണ്ട് മാത്രം നില്ക്കുകയാണ് ഇതില് നിന്നും വ്യത്യസ്തമായി ചിന്തിക്കാനാണ് ഞാന് ഇഷ്ടപ്പെടുന്നത് അത്തരത്തിലുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതാണ് ഇന്നത്തെ സമൂഹത്തിലെ ചെറുപ്പക്കാര്ക്ക് വളരെ പ്രയോജനകരമാകുന്നത് തൊഴില് പരമായ കോഴ്സുകളാകുമ്പോള് അതിന്റെ പ്രാക്ടിക്കലുകളും അവര് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യപരമാണ്